ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളിലെ മോശം ആംബുലൻസ് കണക്റ്റിവിറ്റി കൊണ്ട് നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലായും രോഗികൾക്ക് ആശുപത്രിയിൽ എത്താനുള്ള ബുദ്ധിമുട്ടാണ് ഗ്രാമം ആയതുകൊണ്ട് തന്നെ റോഡുകളുടെ വിശാലതയും വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഗ്രാമത്തിലെ ആംബുലൻസിൻ്റെ പ്രവർത്തനം ആംബുലൻസിൻ്റെ മറ്റു വിഭാഗങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായി നടന്നുപോകുന്നുണ്ട് ആംബുലൻസിനെക്കുറിച്ച് അതല്ലെങ്കിൽ അതിന്റെ കണക്റ്റിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആണെങ്കിലും റോഡുകള് മോശമായതിനാൽ വളരെ പ്രയാസമാണ് എങ്കിലും ഒരു ആംബുലൻസ് മാത്രമാണ് ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാവുക അതുകൊണ്ടുതന്നെ ഒരേ സമയം രണ്ട് മൂന്നാളുകൾക്ക് രോഗം വന്നുകഴിഞ്ഞാൽ ആ ഒരു ഒപ്പം കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അത് ബുദ്ധിമുട്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ആംബുലൻസ് എന്നുള്ളതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ആംബുലൻസുകൾ എന്നുള്ളതിലേക്ക് നാം മനസ്സിനെ മാറ്റേണ്ടതുണ്ട് ഒരു വലിയൊരു അപകടം നടന്നുകഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റുവല്ലതും സംഭവിച്ചുകഴിഞ്ഞാൽ ആ ഒരേയൊരു ആംബുലൻസ് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആംബുലൻസിന് നമുക്ക് ആവശ്യമായുണ്ട് ഒരു പെട്ടെന്ന് അത്യാവശ്യമായി ഒരു വാഹനത്തിന്റെ വലിപ്പക്കുറവ് കൊണ്ടും സൗകര്യക്കുറവുകൊണ്ടും സൗകര്യക്കുറവ് കൊണ്ടും ഉള്ളതുകൊണ്ട് അതുകൊണ്ടു തന്നെ വലിയ ഒരുപാട് യന്ത്രങ്ങളൊക്കെയുള്ള ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ടും ശ്വാസം തടസമായ ഓക്സിജൻ ബന്ധപ്പെട്ട രോഗങ്ങള്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുതന്നെ ഓരോ ഗ്രാമങ്ങളിലും വളരെയേറെ അത്യാധുനിക സംവിധാനമുള്ള ആംബുലൻസുകൾ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ആ അത്തരം ആംബുലൻസുകള് ഓരോ ഗ്രാമത്തിലും വേണമെന്നുള്ളതാണ് അഭ്യര്ത്ഥന ഓരോ ആംബുലൻസിനും ഡ്രൈവറിൻ്റെ കുറവും വളരെയേറെ ബുദ്ധിമുട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ആബുലൻസ് ഓടിക്കാനും കഴിയുകയുള്ളൂ സഞ്ചരിക്കാനും കഴിയുകയുള്ളൂ ആ അതുകൊണ്ടു തന്നെ ഡ്രൈവറും അവന് കുലിക്കൊടുക്കാനുള്ള ശമ്പളവും സർക്കാരിൽ നിന്നുമുണ്ടാവുകയെന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ് ആംബുലൻസ് എന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചും ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളവും അത്യാവശ്യമാണ്